ഹലോ ഹലോ മാം ഞാൻ ഷെറിനാണ് ഇവിടെ നല്ല ടൂ ടൂറിസ്റ്റ് കേന്ദ്രം വന്യജീവിയുടെയൊക്കെ കാണാനൊക്കെയുണ്ടോ അതെവിടെയൊക്കെയാണ്

ആ ആ ആ ആ ആ അല്ലാതെ ഹ് ഹ് ആന ആന കൊട്ടിൽ അവിടെയൊക്കെ അതവിടെയൊക്കെ ഉണ്ടോ ആനകളുടെയൊക്കെ ഹ് ആ ഫാമിലിയായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും പോകാൻ പറ്റുവോ പറ്റുമോ ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ക എല്ലാവർക്കും ആ ആ പോകാൻ പറ്റുവോ ആ നമ്മളെ കൊണ്ടുപോകാനൊക്കെ ആളൊക്കെ ഉണ്ടല്ലോ അല്ലേ കൊണ്ടുപോയി കാണിക്കാൻ കൊണ്ടുപോയി കാണിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നാ ഡാ ഡാമിൽ അപകടങ്ങളൊന്നുമില്ലല്ലോ അവിടെയൊക്കെ

ആ ആ നീ നമുക്ക് നമുക്ക് നീന്തലൊന്നും അറിയത്തില്ലേ അതുകൊണ്ടാണ് ആ ഒത്തിരി വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുവോ

ആ അ ഹാ നമ്മളെ ആക്രമിക്കുവോ അതൊക്കെ ഒത്തിരി

ഗൈഡൊക്കെ ഉണ്ടല്ലോ അല്ലേ